മച്ചാ എവിടാ മച്ചാ കുറെ കാലം ആയല്ലൊ വിളിച്ചിട്ട് നല്ല തന്നെ ഇനിക്ക് എന്താ പാട് ആ ആ ഞാന് ഇനിക്ക് ഒര് തൽക്കാലം നിൽക്കാന് വാടകയ്ക്ക് വീട് കിട്ടുമോ എന്ന് അറിയാന് അത് പുതിയ മോഡല് ഇത് ഇപ്പം ട്രഡീഷൻ മോഡല് പഴയ മോഡല് നാള അല്ല ഇനിക്ക് മാത്രമ ഓ ഇതും ആൾടെ കീഴിൽ ഉണ്ടോ നോക്കുമോ

ഓ എന്നാൽ ഈ ഉണ്ടോ നോക്ക് എന്നിട്ട് വിളിക്ക് എന്തായാലും എന്നാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാൽ ശരി